ആ ഒന്നിൽ കൂടുതലാൾക്കാർക്കു ഫുഡ്ഡ് ഫു ആഹാരം ഉണ്ടാക്കുമ്പോൾ അതിന് അത് കൊ അറിയാത്തൊരാൾക്കത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണമെന്തെന്നു വെച്ചാൽ അതിലാവശ്യമായ ഉപ്പും അതുപോലെതന്നെ മറ്റു സാധനങ്ങളും കറക്റ്റിട്ടില്ലെങ്കിൽ കറി ഒരു ടേയ്റ്റും കാണത്തില്ല അപ്പോൾ ഒരാൾക്കു വെയ്ക്കുമ്പോൾ നമുക്കറിയാം അതെത്ര ഇട്ടാൽ മതിയാകും എന്നു നമുക്ക് അത് ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളു എന്നാൽ കൂടുതലാൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ പാത്രങ്ങളും അതുപോലെതന്നെ കൂടുതൽ സാധനങ്ങളും അതിനു വേണ്ടി ആവശ്യം വരും അതുകൊണ്ടു തന്നെ മിക്ക ഉള്ളവർക്കും അതിനെക്കുറിച്ചു വലിയ ഐഡിയ ഒന്നുമില്ല മിക്ക ഉള്ളവർക്കും എന്നു വെച്ചാൽ വീട്ടിലുള്ള ഒരു പത്ത് പത്തൊൻപത് പത്ത് പതിനെട്ട് പത്തൊൻപത് ആ വയസ്സു പ്രായമുള്ള പിള്ളേർക്കും അതുപോലെതന്നെ ഒരിരുപത് മുപ്പത് വയ ഇരുപത് റ്റു ഇരുപത്തഞ്ച് വയസ്സ് ഉള്ള ഒരു പിള്ളേർക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ കാണത്തില്ല കാരണം അവർ പാചകം ചെയ്യാൻ അടുക്കളയിൽ പോയിട്ട് എങ്ങും അങ്ങനെ ഒരു പരിപാടിയും ചെയ്യാത്ത പിള്ളേരൊക്കെ ഉണ്ടല്ലൊ അവർക്കൊന്നും അതിനെക്കുറിച്ചറിഞ്ഞു കൂടായിരിക്കും അപ്പോൾ സംഭവം കുറച്ചും കൂടി പാടാണ് അതു പോലെ തന്നെ വേഗത്തിലുണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളെന്തെന്നു വെച്ചാൽ ഒന്നാമത് വലിയ പാത്രങ്ങളുപയോഗിക്കണം പിന്നെ നല്ല വലിയ പാത്രങ്ങൾ അതുപോലെതന്നെ നമ്മുടെ വലിയ വലിയ ഗ്യാസുകളുപയോഗിക്കൽ കൂടുതലായിട്ട് നമുക്കു ചൂടു കിട്ടിയാൽത്തന്നെ അതു പെട്ടെന്നു വേകുകയും ചെയ്യും വലിയ പാത്രങ്ങളാകുമ്പോൾ തവണത്തവണ വെക്കുന്നതിന് പകരം ഒത്ത് ഇട്ടു വെയ്ക്കാവുന്നതാണ് അപ്പം ഇതൊക്കെത്തന്നെ